ഇപ്പം വെള്ളം അരിക്കാനാണേലും ശുദ്ധീകരിക്കാനാണേലും നമ്മള് കുറെ രീതികള് നമ്മള് ഫോള്ളോ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ വീട്ടില് ചെയ്യുന്ന രീതിന്ന് പറയുവാണെങ്കിൽ തന്നെ എന്താ പറയുക ആ ഇപ്പം നമ്മളൊരു വീട്ടില് കുറെ രീതികള് നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട് ഒന്ന് വെച്ചാൽ ഈ അരിപ്പ ഒക്കേണ്ടാവുല്ലേ ഈ ചായയൊക്കെ അരിക്കുന്ന അതുപോൽത്തൊരു വലിയൊരു അരിപ്പ ഒക്കെയില്ലേ ഈ പലക്കെ അരിക്കുന്ന സൈസ് അരിപ്പ ഉണ്ടാകും അരിപ്പയിൽ നമ്മള് വെള്ളമൊഴിച്ചിട്ട് അരിച്ചെടുക്കാറാ ചെയ്യുന്നത് അല്ലേ പിന്നെ തുണിയിലൊക്കെ നമ്മള് കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ തുണിയിലൊക്കെ പിടിച്ചിട്ട് ഒരു ബക്കറ്റിൻ്റെ മുകളില് വിരി വിരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടീട്ടുള്ള വേസ്റ്റക്കെ ആ തുണിയേല് തങ്ങി നിന്നോളും പിന്നെ ശുദ്ധീകരിക്കാനൊള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫിൽറ്ററു ചെയ്താൽ സമ്മർ ഫിൽറ്ററ് ചെയ്തൊരു ബക്കറ്റ് പോലത്തെ സംഭവം ഉണ്ട് അതിനാത്ത് നമ്മള് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് നമ്മള് ഇതാക്കുവാണെങ്കിൽ നമുക്ക് ശുദ്ധ വെള്ളം കിട്ടുന്നതാണ് പറയുന്നത് നമ്മള് വെള്ളമൊഴിക്കുവാണെങ്കില് നമ്മള് ഇപ്പം കലങ്ങിയ വെള്ളാണെങ്കിലും ചീ എന്ത് വെള്ളാണേലും നമ്മള് ഒഴിക്കുവാണേല് തിരിച്ച് നമുക്ക് കിട്ടുന്നത് നല്ല ശുദ്ധായിട്ട് തെളിഞ്ഞ വെള്ളായിട്ടായിരിക്കും കിട്ടനൊണ്ടാവുക ഇതാണ് നമ്മള് ഓരോ മാർഗ്ഗം എന്ന് പറയുന്നത് ഇതേ ഇതുപോലെ തന്നെ കുറെ മാർഗ്ഗങ്ങള് നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു വീട്ടുപകരണങ്ങളിൽ ഒന്നാണെങ്കിൽ ഫിൽറ്ററും പിന്നെ അരിപ്പയൊക്കെ അങ്ങനെ എൻ്റെ വീട്ടിലക്കേന്ന് പറയുവാണെങ്കില് ഇതുപോലത്തെ ഒക്കെയാണ് നമ്മള് വെള്ളം ശുദ്ധിക്യ ശുദ്ധീകരിക്കാറൊള്ളെ ഇതാണ് ഞങ്ങള് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്